ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെല്ല് വെല്ലുവിളികളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിടാറുണ്ട് ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗം ആയി കുറിച്ച് പ്രൊജക്റ്റിൻ്റെ ഭാഗമായതിനെ തുടർന്ന് മറ്റുകാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ജോലി സമയത്ത് എന്താ പറയുക ഒരുപാട് നമുക്ക് സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും എന്താ പറയുക ഇടയിൽ നമുക്കൊരു സമയം ഒന്നും കിട്ടാണ്ട് ഫുൾ ആ ഒരു കാര്യം തന്നെ നോക്കേണ്ടി വരും എന്താ പറയുക വീട്ടിലോട്ടും മറ്റ് എന്തെങ്കിലും നമുക്ക് ആവശ്യങ്ങൾക്ക് വിളിക്കാനും മറ്റും ഒരു ബ്രേക്ക് പോലും കിട്ടാത്ത ഒരു അവസ്ഥ വരാറുണ്ട് അപ്പം ആ ഒരു ദിവസങ്ങൾ നോക്കുവാന്ന് വെച്ചാൽ ഭയങ്കര റഷ് ആയിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണം ഇപ്പം വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ നേരത്തെ ഇറങ്ങി മറ്റും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് പോയാൽ ആയിക്കോട്ടെ അവിടെ ഒരുപാട് വ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് വെല്ലുവിളി തന്നെയാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിന് അനുസരിച്ച് ഇപ്പം നമ്മൾ എന്തെങ്കിലും രണ്ട് മൂന്ന് ദിവസം ലീവ് എന്തെങ്കിലും എടുത്തിട്ട് ഒക്കെ ഉണ്ട് വെച്ചാൽ അതിന് അനുസരിച്ച് ഹെവി ലോഡ് ആയിരിക്കും അപ്പോൾ അതൊക്കെ എല്ലാം കമ്പ്ലീറ്റ് ആക്കി പിന്നെ വീട്ടിൽ പോകുന്ന സമയത്ത് കുറച്ചും കൂടി റിലീഫ് ആയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്